സാങ്കേതികവിദ്യ കുട്ടികളിൽ വളരെയധികം ഉപകാരകരമായ കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളിലെ അത് പഠനത്തെ അത് സാരമായ രീതിയിൽ ബാധിക്കുന്നു പഠിക്കാൻ നല്ലത് പോലെ പഠിക്കുന്ന കുട്ടികൾ പോലും പിന്നോക്കമായ അവസ്ഥയിലോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അവർ വളരെ രാത്രിയായി ഫോണ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇവർക്ക് രാത്രിയിൽ ഉറക്കം ശരിയാവാത്തത് കൊണ്ടും ക്ഷീണം അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ ഈ ഉറക്ക ക്ഷീണം മൂലം കുട്ടികൾക്ക് പഠിത്തത്തെ അത് വളരെയധികമായി ബാധിക്കുന്നുണ്ട് പിന്നെ കണ്ണ് കണ്ണ് ഒന്ന് വായിക്കാനോ ഇപ്പം മിക്ക കുട്ടികളിലും കണ്ണട ഉപയോഗിക്കേണ്ട കാരണമാണ് കാരണം ഈ സ്ക്രീന് ഉപയോഗിക്കുന്ന കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കുട്ടികളിലെ പിന്നെ ടി വി ആണെങ്കിലും ഫോൺ ആണെങ്കിലും യൂസ് ചെയ്യുന്നത് വളരെയധികം കുട്ടികളാണ് പിന്നെ മാനസികമായിട്ടും അവരെ ഒരു ഉല്ലാസമായ രീതിയിൽ ചെയ്യേണ്ട നടക്കേണ്ട പ്രായത്തിലെ കുഞ്ഞുങ്ങൾ ഈ ഫോണും വെച്ചൊണ്ടിരിക്കുന്നത് കൊണ്ട് അവരെ അവരെ ഒരു ഒരിടത്തിരുന്ന് കളിക്കാൻ പോലും മറ്റു കുട്ടികളുമായി കളിക്കാൻ അല്ലെങ്കിൽ ഇവർക്ക് താല്പര്യമില്ല ഫോൺ മാത്രം മതി അവർക്ക് ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള അവർക്ക് അവരുടെയൊക്കെയൊരു ധാരണ പിന്നെ മറ്റു കുട്ടികളുമായുള്ള ഫോൺ മറ്റു കുട്ടികളുമായുള്ള അവരുടെ കളികൾ സംഭാഷണങ്ങൾ ഇവയൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഈ പണ്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരുടെ കൂടെ കളിച്ചു മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർ ഫിറ്റായിരുന്നു പക്ഷേ ഇന്നത്തെ കുട്ടികൾ ഈ രണ്ട് കാര്യത്തിലും വളരെ പിന്നോക്കം അവസ്ഥയിലാണ് അത്യാവശ്യ കാര്യങ്ങളിൽ മാത്രം കുട്ടികൾ ഇതുപോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാം ഉപയോഗിക്കരുത് എന്നല്ല എങ്കിൽ കൂടിയും മാതാപിതാക്കന്മാർ കുട്ടികളെ ഇതിൽ നിന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ ആവശ്യമുണ്ട് ഈ പരിണിതഫലം എന്ന് പറഞ്ഞാൽ ഈ അപകടമായ അപകടകരമായ പരിണിതഫലങ്ങളിൽ നിന്നും കുട്ടികളെ നമുക്ക് എങ്ങനെയൊക്കെ സംരക്ഷിക്കാം എന്ന ക്വസ്റ്റിന് കുട്ടികളെ മൊബൈൽ യൂസിൽ നിന്നും വളരെയധികം പിന്നോട്ട് നമ്മൾ വലിക്കേണ്ടതുണ്ട് അവരെ വേറെ വേറെ പ്രവർത്തനങ്ങളിലോട്ടും ജോലികളിലോട്ടും അവരെ ക്ഷണിക്കുക അതായത് വീട്ടിൽ കുറച്ച് ജോലിയുടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവരെ ചെറിയ ജോലികൾ ജോലികൾ ചെയ്യാനവരെ സഹായം അവരെ ആ മാതാപിതാക്കളെ സഹായിക്കാൻ അവരോട് പറയുക വീടൊക്കെ ക്ലീൻ ചെയ്യാനാണെങ്കിൽ കൂടിയും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടികളാണ് അപ്പം അതുകൊണ്ട് അത്രോം സമയം ഈ ഈ ഫോണിൻ്റെയും ടി വിയുടെ ഒക്കെ യൂസ് ചെയ്യുന്ന അവരെ പിന്തിരിക്കാൻ പറ്റും പിന്നെ മാതാപിതാക്കളും വീട്ടിലുള്ളവരും തമ്മിലുള്ള സംസാരങ്ങൾ വൈകുന്നേരമാണെങ്കിലും പിള്ളേർ വീട്ടിലിരിക്കുന്ന സമയത്ത് അവരോട് സംസാരിക്കുക അവരുടെ കൂടെ കളിക്കാനും ഒക്കെ നമുക്ക് സമയം കണ്ടെത്തണം അപ്പോൾ സമയം കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് അവരെ നമ്മളോട് കൂടുതൽ ചേർത്തു നിർത്താൻ പറ്റും ഫോണിൻ്റെ യൂസ് കുറയും ചെയ്യും പിന്നെ ഇൻ്റെർനെറ്റ് ഗൂഗിൾ ഗൂഗിൾലെക്കെ പിള്ളേർ വളരെയധികം യൂസ്ലെസ് ആ പിക്ചേഴ്സും വീഡിയോസും എടുക്കുമ്പോൾ എടുക്കുന്നുണ്ട് എടുക്കുന്നില്ല എന്നല്ല നമ്മളവർ എന്താ ഈ ഫോൺ യൂസ് ചെയ്യുമ്പം അവർ കാണുന്നത് എന്നുള്ളത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് കുട്ടികളെ ഫോൺ ഫോൺ ടി വി ഉപയോഗിച്ചാൽ തന്നെ അമിതമായി ഉപയോഗിക്കരുത് എന്തെങ്കിലും ഫോൺ കയ്യിന്നുള്ള പിള്ളേരുടെ കയ്യിൽ കൊടുത്തിട്ട് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം അതിനനുസരിച്ച് പുസ്തകങ്ങൾ വായിക്കാനും അത് നല്ലപോലെ പുസ്തകങ്ങൾ മേടിച്ചു കൊടുക്കാനും മാതാപിതാക്കൾ ശ്രദ്ധിക്കുക